ആ അതെ അതെ ആ അതെ ആ നിങ്ങൾക്കായി ഉപയോ ആ ഉണ്ട് ഉണ്ട് നിങ്ങള് എത്ര മീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത് എത്രയാണ്

ആ നമ്മുടെ കടയിൽ ഇപ്പോൾ ആ നമ്മൾ ഇപ്പോൾ കടയില് ലഭ്യമായിട്ടുള്ളത് ഒരു മീറ്ററിന് അവിടെ ആയിരത്തി എണ്ണൂറ് രൂപക്കായിരിക്കും ഉണ്ടാവുന്നത് ഇപ്പം കൂടുതൽ അല്ലേന്ന് വെച്ചാൽ ക്യാഷ് ആണ് നമ്മള് വിദേശത്ത് നിന്ന് എല്ലാം ഇറക്കുമതി ചെയ്യുന്ന ഒരു മരമാണ് പിന്നെ നമ്മളുടെ കടയിൽ നിന്നാണ് എല്ലാവരും ഇത് ഇപ്പോൾ എടുക്കുന്നത് കൂടുതലായിട്ടും നമ്മളുടെ കടയിലാണ് വേണേൽ ചോദിച്ച് നോക്കിയാൽ മതി നിങ്ങള് കുറെ കൂടുതൽ ഒരുമിച്ച് വാങ്ങുവാണെങ്കില് നമുക്ക് കിഴിവ് അനുവദിക്കാവുന്നതാണ് ഒര് പത്ത് ശതമാനം നമുക്ക് കിഴിവ് ഞാൻ തരാൻ നോക്കാം ആ ആ ആ ഇല്ല നമ്മുടെ നമ്മളുടെ കടയിലത് നമ്മള് കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒര് മരം തന്നെ ആണ് കൂടുതലൊന്നും കേടുപാടുകൾ ഒന്നും സംഭവിച്ചിട്ട് ഇത് വരെ ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല നമ്മള് ഒരു മീറ്ററിന് നമ്മൾ ഇത്ര ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കടയില് വേറെ നമ്മുടെ നിർമ്മിച്ച് വെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ട് അതായത് ബാറ്റും അങ്ങനത്തെ കാര്യങ്ങൾ എല്ലം ഉണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നേരിട്ട് കടയിൽ വന്നിട്ട് നോക്കിയിട്ട് വാങ്ങാവുന്നതാണ് ആ എപ്പഴത്തേക്കാണ് വേണ്ടത് ആ നോക്കാം പക്ഷെ വിദേശത്ത് നിന്ന് വരുന്നതാണ് ഒരു കുറച്ച് ഒരു സമയം നമുക്ക് വേണ്ടി വരും എന്നാലും നമ്മള് നോക്കാം നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇറക്കുമതി ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരുമിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഫോൺ തരുന്ന സംഭവം നമ്മള് ഉറപ്പിച്ചിട്ട് ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം ആ ആ എന്നാൽ ഞാൻ അത് ആ ശരി എന്നാൽ ശരി